ഞങ്ങൾ മലയാളികൾ സാധാരണ കൂടുതലായി മലയാളം ന്യൂസാണ് കാണുന്നത് അതിനകത്ത് ഏഷ്യനെറ്റുണ്ട് മലയാളമനോരമയുണ്ട് മാതൃഭൂമിയുണ്ട് കൈരളിയുണ്ട് അങ്ങനെ ഒത്തിരി വ്യത്യസ്തമായ ചാനൽ വാർത്താച്ചാനലുകൾ ഞങ്ങളുടെ കേരള കേരള ടി വി ഒക്കെ ലഭിക്കുന്നതാണ് ഞങ്ങൾക്ക് വാർത്ത കാണാം മലയാളം വാർത്ത കാണാനാണിഷ്ടം അതുപോലെ നമ്മുടെ ടി വിയിൽ ഹിന്ദി ഇംഗ്ലീഷുമൊക്കെക്കിട്ടും എന്നാലും എല്ലാ ആൾക്കാരും മലയാളം വാർത്ത കാണാനാണ് താല്പര്യപ്പെടുന്നത് അതുപോലെ കായികമായിട്ടുള്ള സ്പോർട്സ് വാർത്തകൾ കാണാനും ഇഷ്ടപ്പെടുന്നുണ്ട് മലയാളം ഞങ്ങളുടെ ദേ മറ്റ് മാതൃഫാഷയാണ് അത് കാർണം എല്ലാവർക്കും കേൾക്കാനും മനസ്സിലാക്കാനും എല്ലാ ആൾക്കാർക്കും പ്രായവായവർക്കും കുഞ്ഞ്ങ്ങൾക്കെല്ലാം എള്പ്പത്തിൽ മനസ്സിലാകുന്നതും താല്പ കാണാൻ താല്പര്യമുള്ളതുമായ ചാനലുകൾ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ട്വൻ്റിഫോറ് റിപ്പോട്ടറ് അങ്ങനെയുള്ള ചാനലുകളാണ് ഇതെല്ലാം കാണുമ്പോൾ കാ വാർത്ത കാണുമ്പോൾത്തന്നെ നമുക്ക് പേടിയാണ് നമുക്കൊരു മനസ്സിന് ഒരു ശാന്തി സമാധാനം ലഭിക്കുന്ന വാർത്തകളൊന്നും നമുക്ക് കാണാൻ കിട്ടുകയില്ല പിന്നെ അമ്മമാരെല്ലാവർക്കും സീരിയലിൻ്റെ സമയാവുമ്പോൾ സീരിയലിലോട്ട് സീരിയല് കാണാനായിട്ടവർ ടി വി ഓപ്പൺ ചെയ്യുന്നത് ഇപ്പം വൈകുന്നേരം സന്ധ്യാസമയം ആയിട്ടുണ്ടെങ്കിൽ അമ്മമാർ പണിയെല്ലാം കഴിഞ്ഞ് ന്യൂസ് വെക്കാമെന്ന് ഭർത്താക്കന്മാർ പറഞ്ഞാൽ ഏയ് ഞങ്ങൾക്ക് സീര്യല് കാണണം സീര്യല് വെക്കാമെന്നു പറഞ്ഞ് വൈകുന്നേരം സമയമാകുമ്പോൾ അമ്മമാർ പഴയ സീരിയല് കാണാൻ വന്നിരിക്കുന്നു പിന്നെ ചേട്ടന്മാരും പിള്ളേരൊക്കെ രാവിലെ കാപ്പി കുടിക്കാനിരിക്കുമ്പോഴെല്ലാം വാർത്ത വെച്ച് വാർത്ത കാണുന്നു വാർത്തകളറിയുന്നു വാർത്തകൾ മറ്റുള്ളവരുമായി പങ്കിടിന്നു കേട്ട വാർത്തകൾ നമുക്ക് വാർത്ത കേൾക്കുമ്പം തന്നെ നമുക്കറിയാമല്ലോ ഇന്നത്തെ വാർത്തകളെന്നാൽ വാർത്തകളാണെന്നൊക്കെ പിന്നെ ഇതുകൊണ്ട് ഗുണങ്ങളുണ്ട് ദോഷങ്ങൾ മാത്രമല്ല ഗുണങ്ങളുണ്ട് നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും പിന്നെ റിപ്പോർട്ടർ ട്വൻ്റിഫോറ് റിപ്പോട്ടറൊക്കെ ആവുമ്പോൾ ഒത്തിരി വലിച്ചു നീട്ടില്ലാതെ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് മനസ്സിൽ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യ എളുപ്പത്തിൽ നമുക്ക് ന്യൂസറിയാൻ പറ്റും ഒത്തിരി വളച്ചുകെട്ടില്ലാതെ റിപ്പോട്ടറും അതുപോലെ ട്വൻ്റിഫോറൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കും പിന്നെ അപ്പപ്പോൾത്തന്നെ വാർത്തകൾ അറിയുന്നതിന് ട്വൻ്റിഫോറും റിപ്പോട്ടറൊക്കെ നമ്മെ സഹായിക്കുന്നുണ്ട് ഞാനേറ്റവും ഇഷ്ടപ്പെടുന്നത് ട്വൻ്റിഫോറ് റിപ്പോട്ടറാണ് അതാണ് ഞാൻ റിപ്പോട്ടറും ആണ് അതാണ് ഞാനതിനെക്കുറിച്ച് പറഞ്ഞത് പരസ്യം കുറവാണ് വാർത്തകൾക്ക് ഇമ്പോർട്ടൻ്റ് നൽകുന്നു ക്ലിയറാണ് ഓരോ സ്ഥലത്തുംപോയി അപ്പപ്പോൾ ഓരോ പ്രദേശത്തേയും വാർത്തകൾ അന്നേരം തന്നെ നമുക്ക് ഈ ചാനലുകളിലൂടെ അറിയാൻ സഹായിക്കുന്നു ഇവരുടെ ഇവർ നൽകുന്ന ചിത്രവും പറയുന്ന കാര്യങ്ങളും എല്ലാം വലിച്ചു നീട്ടില്ലാതെ ക്ലിയറായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ തരത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ പറയുന്നു പറയും